ഹലോ ഊബർ അല്ലേ എനിക്ക് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയ്യതിയിലേക്ക് ഒരു ക്യാബ് വേണമായിരുന്നു അപ്പം അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് എനിക്ക് ഒരു ചെറിയ വാഹനം എങ്ങനെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇപ്പം ഒരു നാലു പേർക്കൊക്കെ പോവാൻ പറ്റുന്ന ഒരു വാഹനത്തിൻ്റെ റേറ്റ് എത്രയാണ് നമുക്ക് പോവേണ്ട സ്ഥലം എന്ന് പറയുന്നത് ഒരു ഫൈവ് ഡേ അഞ്ച് ദിവസത്തെ യാത്ര ആയിരിക്കും നമ്മൾ ആദ്യം ഇവിടെ നിന്ന് വാഗമണ്ണ് പോവും

പിന്നെ ഇതിപ്പം നാല് എന്ന് പറയുന്നത് ആളുകളുടെ എണ്ണം കൂടി കഴിഞ്ഞു ഒരു ആറു പേർക്ക് അല്ലെങ്കിൽ ഏഴ് പേർക്കോ പോവാൻ പറ്റിയ ഇന്നോവ ഇന്നോവ പോലത്തെ വലിയ വണ്ടി ആണെങ്കിൽ അതിൻ്റെ റേറ്റ് എത്രയാവും അപ്പം ഇതെല്ലാം ഒന്ന് തിരക്കിയിട്ട് ഒന്ന് പറയാമോ